വാർത്ത നമ്മള് പണ്ട് കാലങ്ങളിൽ പത്രം എന്നു പറയുന്നൊരു സാധനം അതായത് ഓരോ വീടുകളിലും ഇങ്ങനെ പത്ര സ് എത്തിച്ച് അതിന് ഇത്ര രൂപകൊടുത്ത് പത്രങ്ങളെത്തിച്ച് അങ്ങനെ വായിക്കണമായിരുന്നു ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മടെ മാധ്യമം അല്ലെങ്കില് പത്രം എന്നു പറയുന്നത് നമ്മുടെ ഫോണില് തന്നെ കിട്ടുന്നുണ്ട് ഇപ്പോള് ഈ ഈ ന്യൂസ് അങ്ങനെ ഉള്ള കാര്യങ്ങള് ഒരുപാട് ആപ്പുകളും എല്ലാമുണ്ട് അപ്പോള് അതിനാത്തൂടെ നമ്മള്ക്കു ബന്ധപ്പെട്ട് ഇപ്പോള് ഓരോ ദിവസം ഇത്ര പൈസ അടക്കേണ്ടത് ഒരുപാട് പൈസ വ്യത്യാസമുള്ള സബ്ക്രൈബേർസ് ആണെങ്കില് അതിനുള്ള പൈസ കുറവാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മാത്രമല്ല നമ്മുടെ പണ്ടുകാലങ്ങളിൽ വലിയ കത്ര പത്ര കട്ടിങ് കട്ടിങ്സായിട്ട് ഓരോ വീടുകളിലും കൊണ്ടൊന്നു എത്തിക്കേണ്ട സാധനങ്ങള് ഇപ്പോള് നമ്മള് നമ്മുടെ കൈകളിലേക്കും ഏത് സമയത്താണെങ്കിലും നമുക്ക് പത്രമെടുത്ത് വായിക്കാം വിലക്കുറവാണ് അതുപോലെ തന്നെ ഒരുപാട് നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പോള് നമ്മുടെ ചുറ്റും നടക്കണ കാര്യങ്ങളെ പറ്റി അറിയാൻ അല്ലെങ്കില് ഇപ്പോള് ഇപ്പോള് നമ്മള് ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രം നല്ല വ്യക്തമായിട്ട് പറഞ്ഞുതരും അല്ലെങ്കില് അതിനെ പറ്റി തന്നെ ഡീറ്റൈലായിട്ട് ആ ഒരു ഇതൊക്കെ എന്താണ് നാട്ടില് നടക്കുന്ന കാര്യം അല്ലെങ്കില് നമ്മുടെ സ്വന്തം ജില്ലയില് നടക്കുന്ന പലകാര്യങ്ങള് നമ്മള് അറിയാതെ പോണണ്ട് അപ്പോള് അതിനെ പറ്റി നമുക്ക് ഡീറ്റൈലായിട്ട് പറഞ്ഞു തരാനും എല്ലാം മാധ്യമങ്ങള് സഹായിക്കും പണ്ടുകാലങ്ങളില് ഒരു കാര്യം എന്തേലും കേട്ടുകഴിഞ്ഞാല് പിന്നെ അതിനെ ഇത്ര നാള് എത്ര നാള് കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നേ ഓരോ ആൾക്കാരും വന്ന് നമ്മളോട് പറയും ആ ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു എന്നാല് പക്ഷെ നമ്മള്ക്ക് ആ ഒരു രീതിയിലല്ല ഇപ്പോള് പത്രങ്ങളില് കിട്ടുന്നെ അതായത് ഇന്ന് നടക്കണ കാര്യം ഇന്ന് തന്നെ നമ്മള്ക്കറിയാന് പറ്റും അല്ലെങ്കില് തൊട്ടടുത്ത ദിവസം നമ്മളെ പെട്ടെന്ന് അറിയിക്ക് അറിയിക്കാനും അതുപോലെ തന്നെ നമ്മളെ പെട്ടെന്ന് സഹായിക്കുന്നൊരു ഉപകരണമാണ് മാധ്യമമെന്ന് പറയുന്നത് ഫോണെന്നു പറയുന്നത് ഒരുപാട് നമ്മളെ സഹായിക്കുകമാത്രമല്ല അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളിലും നല്ല വ്യക്തമായിട്ട് അതിനെ പറഞ്ഞു തരുകയും അതുപോലെ തന്നെ നമ്മുടേ മൊബൈൽ ഫോണിലെ ഓരോ മൊബൈൽ ഫോണില് നമ്മുടെ ഇന്നു നടക്കുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തും ഓരോ ന്യൂസിലും ഒരു ന്ത് കൊലപാതകം നടന്നാല് അത് നമ്മള് അറിയുന്നത് ചിലപ്പോള് മാസങ്ങള് കഴിഞ്ഞൊക്കെ ആയിരിക്കും പണ്ട് ഇപ്പഴെന്നു പറഞ്ഞാല് അതിൽനിന്നെല്ലാം നല്ല വ്യത്യാസമായിട്ട് ആ ഒരു സെക്കൻഡില് നമുക്ക് എപ്പോള് എന്ത് സംഭവം നടക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അല്ലേ നമ്മുടെ ഫോണില് നമുക്കന്നേരെ കറക്റ്റ് അറിയാന് പറ്റും ഇപ്പോള് സ്വന്തം നാട്ടില് തന്നെ ഒരു കൊലപാതകം നടന്നു അല്ലേ എന്തേലൊരു ഇൻസ് നടന്നുകഴിഞ്ഞാല് പിന്നെ നമ്മളറിയാതിരുന്നോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോള് ഇത് ആ സെക്കൻഡില് നമുക്ക് ന്യൂസ് എത്തിക്കാന് പറ്റും അതുപോലെ നമ്മളെ സഹായിക്കുന്നെ ഒരു ഉപകരണമാണ് മാധ്യമം ഇപ്പോള് വാർത്ത വ്യവസായത്തിൽ സാങ്കേതിക വിദ്യ ഏത് വിധത്തിലാണ് സഹായിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാല് ഇതിന് കൂടുതല് എന്തു പറയാനാണുള്ളത് നമ്മുടെ ഇപ്പോള് നമുക്കൊരു ഇപ്പോള് ഒരു പ്ലസ് ടു കഴിഞ്ഞു നില്ക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കില് ഡിഗ്രി കഴിഞ്ഞുനില്ക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്ക് അവർക്ക് എന്തേലൊരു പഠനോപകരണങ്ങള് അല്ലെങ്കില് പഠനത്തിന് വേണ്ടി അല്ലെ മുമ്പോട്ട് എന്തെങ്കിലും ജോലിക്ക് പോകണം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മള് ഒരുപാട് സഹായിക്കുന്നൊരു രീതിയാണ് വാർത്താമാധ്യമം എന്നുപറയുന്നത് നമുക്ക് എന്ത് കാര്യമുണ്ടേലും അല്ലെങ്കില് ഇപ്പോള് പെട്ടെന്ന് നമ്മള്ക്കൊരു അത്യാവശ്യം വന്ന് അത് വളരെ വാർത്ത നോക്ക് ഇപ്പോള് ഒരുപാട് പി എസ് സി എക്സാം അങ്ങനങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നു അപ്പോള് അതിനോട് നമ്മള്ക്ക് ഒരുപാട് യോജിച്ച് അല്ലെങ്കില് ആ ഒരു രീതിയില് നമുക്ക് പെട്ടെന്ന് എന്തേലും അറിയണോന്നുണ്ടെങ്കില് വാർത്ത അല്ലെങ്കില് പത്രം എടുത്ത് നോക്കുക ആ ഒരു രീതി നമുക്ക് മുമ്പോട്ട് കൊണ്ടോവാം വളരെ ഉപകാരപ്രദം ഉപകാരപ്രദമായൊരു രീതിയാണ് വാർത്താ വ്യവസായത്തിൽ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമുക്ക് എന്ത് സഹാ എന്ത് വേണേലും ഇപ്പോള് നമുക്കെന്തേലും അത്യാവശ്യം എവിടേലും പോകണം അപ്പോള് ഗൂഗിൾ മാപ്പിട്ട് ആ ഒരു രീതിക്കന്നെ വഴി മാറിപ്പോണെ എല്ലാ വാർത്താമാധ്യമങ്ങളും നമ്മളെ സഹായിക്കുന്നതാണ് ഒരുപാട് ഉപകരണം അല്ലെങ്കില് ഉപയോഗപ്രദമായൊരു രീതിയാണ് ഇനി മുമ്പോട്ടുള്ളത്